ആ ഹലോ ആ ഞാൻ വിളിച്ചത് ഞാൻ കെടങ്ങറായിൽനിന്നാണെ ഞാനിവിടെ പുതിയത് ആയിട്ട് താമസ് കൺസ്യൂമർ നമ്പറ് ഞാൻ വാട്ട്സപ്പിൽ ഇട്ടാൽ മതിയോ ആ ഇടാവേ ഞാൻ വിളി ആ പുതിയ ആളാണെ ഞാൻ വിളിച്ചത് എന്നാ എന്നറിയാമോ എനിക്ക് പുതിയതായിട്ട് ഞാൻ അവിടെ ബുക്ക് ചെയ്ത് എനിക്ക് രണ്ട് സിലിണ്ടറും കിട്ടി ഗ്യാസ് സ്റ്റൗവ്വും കിട്ടിയേ പക്ഷെ എനിക്കിതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഇവിടെയൊന്ന് വീട്ടിലൊന്ന് ഒന്ന് വെച്ച് തരാമോ ഇതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലെ ഞങ്ങളുടെ ഈ റൂട്ടിൽ വരുന്നത് വ്യാഴാഴ്ച്ചയും ചൊവ്വാഴ്ചയുമാണ് വരുന്നത് ആ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ആ കിട്ടുന്നതാണ് ആ സിലിണ്ടർ ഇരിപ്പുണ്ട് രണ്ടു സിലിണ്ടറും ഉണ്ട് ആ എനിക്ക് ഇതൊന്ന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് തന്നാൽ മതി അ അവിടെ ചൊവ്വായും വ്യാഴോവ ഈ റൂട്ടിൽ വരുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ വെയ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിത് യൂസ് ചെയ്യണമല്ലോ അപ്പം ആരെയെങ്കിലും എക്സ്ട്രാ ഒന്ന് വിടുകയാണെങ്കിലെ കുഴപ്പമില്ല അത് നമുക്ക് കൊടുക്കാവെ ഒന്നുചെയ്തു തരുമോ എന്ന് ഞാൻ എത്രയാ ചാർജ്ജ് കൊടുക്കേണ്ടത് അവർ വരുമ്പം ആ ഓക്കെ ഓക്കെ കൊടുത്തോളാം ഉണ്ട് എല്ലാം ഇവിടെ എല്ലാം ഉണ്ട് അതിന്റെ റെഗുലേറ്ററും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്കൊന്ന് ഫിറ്റ് ചെയ്ത് ത നിൽക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഞാനിവിടെ പുതിയ താമസക്കാരി ആയതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ആരാണെന്ന് ആ എന്നാൽ ശരി ഓക്കെ ഓക്കെ താങ്ക് യു ആ ശരി എന്നാൽ ഓക്കെ മ്